നമ്മുടെ ഇവിടുത്തെ പ്രശസ്തമായ കോളേജെന്നു പറയുന്നത് ഇവിടെ അഞ്ചൽ കോളേജെന്നു പറയുന്നൊരു കോളേജുണ്ട് അപ്പം അത് എന്താ പിന്നെ പ്രൈവറ്റ് പോലെയാണ് ക്രിസ്ത്യൻസിൻ്റെ കോളേജാണ് അപ്പം നമ്മുടെ റിലേറ്റീവൊരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് അപ്പം അവളെടുത്തിരിക്കുന്നത് വെച്ചാൽ ബി ബി എ എക്കണോമിക്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പം അതെടുക്കാനുള്ള ഒരുന്ന് പറഞ്ഞാൽ അവൾ പ്ലസ് ടൂവിൽ കോമേഴ്സ് ആയതു കൊണ്ട് ബി എ എക്കണോമിക്സാണ് എടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു മൂന്ന് വർഷത്തെ രീതിയിൽ അവൾ പഠിക്കുന്നത് ബി എ എക്കണോമിക്സ് പഠിക്കുമ്പോഴത്തേക്ക് അതിൽ ആറു മാസം കൂടുമ്പോഴാണ് സെമിസ്റ്റർ വരുന്നത് അതായത് മൊത്തത്തിൽ മുപ്പത്താറ് പേപ്പറാണ് വരുന്നത് അപ്പം ആറ് മാസം കൂടും ആറ് മാസം കൂടുമ്പോഴാണ് അവർക്ക് പരീക്ഷ വരുന്നത് അപ്പം ഇതു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ എടുക്ക് മൂന്നു വർഷത്തെ പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പി ജി ചെയ്യാനാണ് ആൾക്ക് താല്പര്യം അപ്പം ഈ ബി എ എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന സബ്ജെക്ട്സ് എന്നു പറയുന്നത് പോളിറ്റിക്സ് പൊളിറ്റിക്സ് ഉണ്ട് ഇംഗ്ലീഷ് ഹിസ്റ്ററി ഒക്കെ ഉൾപ്പെട്ടിട്ടാണ് ഇതു വരുന്നത് ബി എ എക്കണോമിക്സുകാർക്ക് വരുന്നത് അപ്പം മുന്നോട്ട് ഇതു പഠിച്ച് പഠിച്ച് മുന്നോട്ടു പോയിട്ട് നല്ല ഒരു ജോലിക്ക് കയറാനൊക്കെ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഈ ഒരു വിഷയം എടുത്തത് അപ്പം നമ്മളിപ്പം ഡിഗ്രിക്ക് കോളേജ് ഡിഗ്രിക്ക് നമ്മളൊരു വിഷയം ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്ലസ് ടു പ്ലസ് വൺ ഏതൊരു വിഷയമാണോ എടുത്തിരിക്കുന്നത് അതിനെ ബേസ്ഡ് ആയിട്ട് ആയിരിക്കണം നമ്മൾ മുന്നോട്ട് ഉള്ള പഠനമായി ബന്ധപ്പെട്ട് നമ്മൾ വിഷയം സെലക്ട് ചെയ്യാനുള്ളത് അപ്പം പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം പുള്ളക്കാരി കോമേഴ്സ് ആയതു കൊണ്ട് ബി എ എക്കണോമിക്സാണ് അപ്പം പുള്ളിക്കാരിക്ക് എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ മാത്സ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം അവൾക്ക് എളുപ്പമാണത് പ്ലസ് ടൂവിന് കോമേഴ്സ് എടുത്തതു കൊണ്ടു തന്നെ അതിനകത്ത് അക്കൗണ്ടൻസി ആയാലും കണക്ക് പരമായിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം പുള്ളിക്കാരിക്കും എളുപ്പം ആയതു കൊണ്ടാണിതെടുക്കുന്നത് അപ്പം മുന്നോട്ട് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പുള്ളിക്കാരിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പി ജി ചെയ്ത് പിന്നെ പി ജിക്കു പോയി പിന്നെ അതു കഴിഞ്ഞിട്ട് എം ഫിൽ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പുള്ളിക്കാരിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ബി എ എക്കണോമിക്സ് തിരഞ്ഞെടുത്തത് അപ്പം ഇത് നല്ലൊരു ജോലി സാധ്യത്തിൽ സാധ്യതക്കൊക്കെ ഉള്ള ഒരു ഇതും കൂടിയാണ് ഈ ഒരു വിഷയം എടുത്തിരിക്കുന്ന ഡിഗ്രി ഇപ്പം നമ്മുടെ അടുത്ത കോളേജ് തന്നെയാണ് അവിടെ എല്ലാ കുട്ടികളും നമുക്ക് അടുത്ത പ്രദേശത്തെ ഈ അഞ്ചൽ കോളേജെന്നു പറയുന്ന അവിടെയാണ് മിക്കുള്ള കുട്ടികളും പഠിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് പോകാനും വരാനുമൊക്കെ സൗകര്യം പെട്ടലുള്ളൊരു കോളേജാണ് ഒരു ഇപ്പം അല്ലാതെ നമ്മൾ നോർമലി പോകുവാണെ നീ തന്നെ ഇവിടുന്നൊരു പതിനഞ്ച് രൂപ പോയിൻറിലാണ് കോളേജുള്ളത് എപ്പോഴും വണ്ടി സൗകര്യവുള്ള സ്ഥലത്താണ് ഈ കോളേജ് ഉള്ളത് അപ്പോൾ കൂടുതൽ അവിടെ നമ്മുടെ സർക്കാരിൻ്റെ അല്ലാ കോളേജ് ക്രിസ്ത്യൻസിൻ്റെ കോളേജാണ് അഞ്ചൽ കോളേജെന്നു പറയുന്നത്